എൽ പി ജി കണക്ഷനുള്ള ഒരു വ്യക്തിയാണ് ഞാൻ നേരത്തെ എനിക്ക് വിറകടുപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നും മാറ്റം ഉണ്ടായപ്പോൾ തന്നെ നല്ലൊരു അനുഭവമാണ് എനിക്ക് ഇതിലൂടെ സാധിച്ചത് കാരണമെന്താന്ന് വെച്ചാൽ വിറകടുപ്പ് ഉപയോഗിച്ചത് വളരെ കഷ്ടപ്പാടായിരുന്നു തീ കത്താതെ വരികയും അത് മാത്രമല്ല മഴക്കാലത്തൊക്കെ തണുപ്പും ഒക്കെ കാരണം വളരെ കഷ്ടപ്പാടായിരുന്നു തീ കത്താൻ ഒക്കെ മാത്രമല്ല ഭക്ഷണം ഭക്ഷണത്തിൻ്റെ പാകം ചെയ്യുന്ന അത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കഷ്ടപ്പാടായിരുന്നു ഇപ്പോൾ എൽ പി ജി കണക്ഷൻ വന്നതോട് കൂടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നുമില്ല എൽ പി ജി കണക്ഷൻ വന്നത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഗ്യാസ് കത്തിക്കുന്നത് കത്തിച്ച് വേഗം ഭക്ഷണം പാകം ചെയ്യാനും കഴിയുകയും മറ്റും അരിയായാലും മറ്റു സാധനങ്ങൾ ആയാലും എല്ലാം പെട്ടെന്നു തന്നെ ഉണ്ടാക്കാൻ കഴിയും മാത്രമല്ല വിറക് എടുത്തുകൊണ്ടു വരുന്നതിൻ്റെ കഷ്ടപ്പാടുമില്ല മാത്രമല്ല മഴയും തണുപ്പും ഒക്കെ വന്നാലും അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല പിന്നെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊന്ന് ഒക്കെയാന്ന് വെച്ചാല് ഒന്നാമത് സുരക്ഷ പ്രശ്നമാണ് സുരക്ഷ വളരെ കുറവാണ് എന്തെങ്കിലും അശ്രദ്ധ മൂലം ഗ്യാസ് ഓഫാക്കാൻ മറന്നു പോവുകയോ മറ്റു ലീക്കേജുകൾ ഉണ്ടാവുകയോ ചെയ്താൽ വലിയ സ്ഫോടനം തന്നെ സംഭവിക്കും അങ്ങനത്തെ അതിൻ്റെ ഒരു ചെറിയ പേടിയുണ്ട് മാത്രമല്ല ഇപ്പോൾ ഗ്യാസ് തീർന്നു പോയാൽ അത് എടുത്ത് കുറ്റി ഗ്യാസ് കുറ്റി എടുത്തു കൊണ്ടു പോകാനും ഉപയോ ശാരീരിക വൈകല്യം ഉള്ള ആൾക്കാർ ഒക്കെയാണെങ്കില് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതുന്നു